വ്യാകരണം ഉച്ചാനം പോലെ മലയാള ഫാഷയ്ക്ക് വളരെയധികം സവിക്ഷേധഷേതകളുണ്ട് മറ്റ് ഭാഷകളി നിന്നും വ്യത്യസ്തമാണ് മലയാള ഭാഷ ക കി കു മുതലായവ നമ്മുടെ മലയാള ഫാഷയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഏറ്റവും പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും പാടൊള്ള ഒരു ഭാക്ഷയാണ് മലയാള ഫാക്ഷ വാക്കുകളുടെ ഉച്ചാരണവും ഇതിൽ പ്രധാന ഒരു ഘടകം വഹിക്കുന്നു കൃത്യമായ ഉച്ചാരണമാണ് മലയാള ഫാഷയിൽ ഒരു മികച്ച ഫാഷയാക്കുന്നത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പലന്ന പതിനാല് തരത്തിലാണ് മലയാളം സംസാരിക്കുന്നത് ഉച്ചാരണ ശൈലിയിലും വ്യാകരണത്തിലും വളരെയധികം വ്യത്യാസങ്ങളൊണ്ട് പ്രധാനമായും തിരുവനന്തപരത്ത് കുട്ടികളെ വിളിക്കുന്ന ഒരു ശൈലിയാണ് എന്തര് അപ്പി നമ്മടെ തൃശ്ശൂരാമ്പം അത് നം വിളിക്കുന്നത് എന്തൊട്ടാണ് ഗടിയെ കോട്ടയമാവുമ്പോൾ അതിൻ്റെ ഭാക്ഷമാറും എന്നാ ഒഡ്ര ഉവ്വേ അപ്പം തൃശ്ശൂരിനും അതിൻ്റെതായ ഭാഷയുണ്ട് എന്തുട്ട കിടാവേ അങ്ങനെ പല വിധത്തിലാണ് ഇതിൻ്റെ വ്യാകരണവും ഉച്ചാരണവും